ജോലിസ്ഥലത്ത് കൂടുതലും നമുക്ക് ഒരു സംഘർഷങ്ങളും പ്രയാസകരമായ സാഹചര്യങ്ങളും എന്ന് പറയുമ്പോൾ സംഘർഷങ്ങൾ ഒന്നും അതുവരെ അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ചില സമയത്ത് വർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ചില സാ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അർജൻറ്റായി തീർത്തു കൊടുക്കേണ്ട വർക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പക്ഷേ അത് വളരെയധികം സ്ട്രെസ്സ് ചെയ്തൊന്നും നമ്മൾ വർക്ക് ചെയ്യാറില്ല കാരണം നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനമാക്കി അതിൽ കുറച്ച് സമാധാനമായിട്ട് മനസ്സിലാക്കിയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളു അപ്പം ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട്തന്നെ വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് പെട്ടെന്ന് കൊടുക്കുന്ന ടൈംലൈൻ കുറവുള്ള വർക്കുകൾക്കാണ് നമ്മളങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറ് അപ്പം നമ്മൾ കുറച്ച് എക്സ്ട്രാ സമയം ഒക്കെ സ്പെൻഡ് ചെയ്തും ആ കുറച്ച് സ്മാർട്ട് വർക്കിലൂടെയും ഒക്കെയാണ് അത് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറ് പിന്നെ അങ്ങനെ വരുന്ന വർക്കുകളിൽ ചിലപ്പം കുറച്ച് എന്താ പറയേണ്ടത് അതിന് പൂർത്തി ചെയ്യുന്നതിന് ചിലപ്പം കുറച്ച് പ്രശ്നങ്ങളോ അല്ലെങ്കിലത് പൂർത്തിയാക്കണം എന്ന് കൃത്യമായിട്ട് അല്ലാതെയോ അങ്ങനെയുള്ളത് വരാറുണ്ട് അപ്പം അത് വരാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് നമുക്കാ ചെയ്യാൻ വേണ്ട സമയം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫറ് ചെയ്യുന്ന കാര്യം നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആക്കുറേറ്റ് ആയിട്ടുളള ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്